കായികം തൊഴിൽ ആക്കി മാറ്റിയ കുറേ പേരുണ്ട് അതായത് നമുക്ക് എക്സാമ്പിൾ ആണെങ്കിൽ പിന്നെ സച്ചിൻ ടെണ്ടുൽക്കർ ആദ്യമൊക്കെ അവർ ജസ്റ്റ് ഒന്ന് എല്ലാവരേയും പോലെ തന്നെ ജസ്റ്റ് ഒന്ന് കളിച്ച് കളിച്ച് തുടങ്ങിട്ടാണല്ലോ ഇന്ത്യൻ ടീമിൽ കയറിയത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് ഒരു ഹരമാണ് അതിനൊപ്പം അവർക്ക് പൈസയും കിട്ടും ഇപ്പോൾ അവരുന്നൊക്കെ വെച്ചിട്ടുണ്ടേൽ എത്ര പഠിച്ചിട്ടുണ്ടെലും അവർ അതിനുള്ള ജോലിക്ക് പോകുന്നില്ല അവരിപ്പോൾ ഇങ്ങനത്തെ കാര്യത്തിന് അങ്ങനെത്തെനൊക്കെയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ അപ്പോൾ തന്നെ നമുക്ക് ചിന്തിച്ചാൽ അറിയാം അവർക്ക് ഇഷ്ടംപോലെ നല്ല പൈസ കിട്ടും അവർക്ക് ഒരു ജീവിതകാലം അവർ രണ്ട് തലമുറക്ക് രണ്ട് തലമുറ അല്ല രണ്ടു മൂന്ന് തലമുറക്ക് ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അതിന്ന് കിട്ടും അപ്പം ആ അങ്ങനെയാണ് സംഭവം അപ്പം മഹിന്ദ്ര സിങ് ധോണി വിരാട് കോഹിലി പിന്നെ മെസ്സി റൊണാൾഡോ നെയ്മർ അങ്ങനെ എല്ലാവരും അങ്ങനെ തന്നെയാണ് കാരണം അവർ വേറെ ജോലിക്കൊന്നും പോകുന്നില്ല അവർക്ക് ഇതിൽനിന്നും ഇഷ്ടംപോലെ സമ്പാധിക്കാൻ ഉള്ള ഒരു പൈസ കിട്ടുന്നുണ്ട് പിന്നെ സ്കൂളിലെ കുട്ടികൾ എന്ന് വെച്ചിട്ടുണ്ടേൽ ഇപ്പോൾ ഞങ്ങടെ അവിടെയാണ് ഒണ്ടങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്താണ് മിന്നുമണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി ഒരു പെൺകുട്ടിയാണ് ക്രിക്കറ്റ് ടീമിൽ കയറി ഇനിയിപ്പോൾ അവരും അങ്ങനെതന്നെ ആയിരിക്കോലോ അവരും കായികം തൊഴിലുപോലെയായി എടുക്കുമല്ലോ എനിക്ക് ആ കുട്ടിനെ അതായത് സ്കൂൾ കുട്ടികൾ സ്പോർട്സിൽ പങ്കെടുക്കാൻ ആദ്യമൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഓട്ടത്തിനും അങ്ങനത്തെ കാര്യത്തിനൊക്കെ പിന്നെ അത് ഒരു പ്രാവശ്യമൊക്കെ പോയിട്ടുള്ളൂ അത് തോറ്റുപോയപ്പോൾ പിന്നെ ഞാൻ ഓടാനും പോയിട്ടില്ല